എയർപോർട്ട് അല്ലേ ഞാനെ എൻ്റെ ഫ്ളൈറ്റ് പത്ത് മണിക്കാണ് എൻ്റെ ഫ്ളൈറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നതെ അത് ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ വരുമ്പം എന്തൊക്കെയാ കൊണ്ടുവരണ്ടെ അ എൻ്റെ കയ്യിലുള്ളത് റ്റിക്കറ്റും പാസ്പോർട്ടും അത്യാവശ്യം ലെകേജുകളും എൻ്റെ കയ്യിലുണ്ട് റ്റിക്കറ്റും പാസ്സ്പോർട്ടും മാത്രം മതിയോ മതി അപ്പോൾ എത്രയാ പത്ത് മണിക്കുള്ള ഫ്ളൈറ്റ് എത്രയാ എപ്പോഴാ എത്ര മണിക്കാ എൻട്ട്രീ എട്ട് മണിക്ക് എട്ട് മണിക്ക് എത്താൻ പറ്റില്ല ഒരു ഒമ്പത് മണിക്ക് മുന്നെ ആ ഓക്കേ